കിണറ്റിൽ നിന്ന് നമുക്ക് പല രീതിയില് വെള്ളമെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പണ്ടുകാലങ്ങളില് അധികം ആൾക്കാരും കിണറ്റില് നമ്മള് ചെറിയ കപ്പിയിട്ടിട്ട് അതിനുള്ളില് തൊട്ടി കയറില് കെട്ടി ആ കപ്പി വഴി തൊട്ടിയിൽ വെള്ളം നിറച്ച് അതുവഴി നമ്മള് കോരിയെടുക്കുന്ന ഒരു സമ്പ്രദായരീതിയാണ് നിലനിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ ആധുനിക യുഗത്തില് ഈ ആ കോരിയെടുക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് മാറ്റങ്ങള് വന്നു കാരണം ഇന്നത്തെ സമൂഹം അത്തരത്തിലുള്ള പണികളും അതൊന്നും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമൂഹമല്ല ഇപ്പോഴത്തെ യുവത്വമെന്ന് പറയുന്നത് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടുകയും വളരെ ഈസിയായി ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും പല ശമ്പളത്തിന് വേണ്ടിയുള്ള ജോലിക്ക് പ്രാധാന്യം നൽകുന്ന ആൾക്കാരുമൊക്കെയാണ് അപ്പോള് അവര് ഇത്തരത്തില് കോരി വെള്ളമെടുക്കാനുള്ള ഒരു താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഈസിയായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി നമുക്കൊരു ഇലക്ട്രിക് മോട്ടോര് ഉപയോഗിച്ചാണ് എല്ലാവരും നമ്മുടെ എന്താണ് ഈയൊരു രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മള് ശരിയാക്കിയെടുക്കുന്നത് ഇലക്ട്രിക് മോട്ടോര് നമുക്ക് എടുക്കുമ്പോഴെന്ന് വെച്ചാല് നമുക്ക് കോരുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകള് നമുക്കങ്ങനെയുണ്ടാകുന്നില്ല നമുക്കത് ഉപയോഗിക്കുകയെന്ന് വെച്ചാല് ഇലക്ട്രിക് മോട്ടോര് നമുക്ക് എന്താണ് കറൻറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കില് ആ ഒരു രീതിയില് നമുക്ക് കറണ്ട് വെച്ച് അത് പ്രവർത്തിപ്പിച്ച് വെള്ളം കറണ്ടിലൂടെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ പൈപ്പ് വഴി നമുക്ക് ടാങ്ക് ഉണ്ടെങ്കില് വാട്ടർ ടാങ്ക് ഉണ്ടെങ്കില് വാട്ടർ ടാങ്കിനുള്ളിലേക്ക് ആ വെള്ളം സംഭരിച്ച് നമുക്ക് പ്ലംബിംഗ് പൈപ്പിംഗ് കണക്ഷൻസൊക്കെ നമ്മള് പ്ലംബിങ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം തന്നെ ഇപ്പോഴത്തെ സമൂഹത്തില് പ്ലംബിംഗ് കണക്ഷനൊന്നുമില്ലാത്ത ഒരു വീടുമുണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പോള് അങ്ങനെ പൈപ്പ് വഴി നമുക്ക് വെള്ളം ഈസിയായിട്ട് ഓരോ റൂമിലും ബാത് റൂമുകളിലും അല്ലെങ്കില് വാഷിംഗ് സെക്ഷനിലൊക്കെ നമുക്ക് ഈസിയായിട്ട് എത്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോള് ഈ ഇലക്ട്രിക് മോട്ടോറെന്ന് പറയുന്നത് വളരെ ഒരു എല്ലാവർക്കും സപ്പോർട്ടിങ്ങായിട്ട് എല്ലാവർക്കും വളരെ വേഗത്തിൽ ഉപയോഗിക്കാനും അതോടൊപ്പം പല ജോലിഭാരങ്ങളും ഒഴിവാക്കാനുമൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോറെന്ന് പറയുന്നത് കറണ്ട് ചാർജ് കുറച്ചാകും അത് അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് നമ്മള് എക്സ്ട്രാ കുറച്ച് പേയ്മെൻറ് ചെയ്യേണ്ടതായി വരും എന്നൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇവിടെയുള്ളത് പൈസയുണ്ടെങ്കിൽ ഇന്നത്തെക്കാലത്ത് പല കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് പിന്നെ പണ്ട് ഈ കോരിയെടുക്കുന്ന രീതിയൊക്കെ നമ്മള് രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെ പലതരത്തിലുള്ള ഒരു വ്യായാമമുറയൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോള് ഈ തരത്തിലുള്ള വ്യായാമമുറയൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളേറുകയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തില്